ആ സാർ എൻ്റെ വീട്ടിലേക്ക് വന്ന ആദായ നികുതി നോട്ടീസിൻ്റെ ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അതുപോലെത്തന്നെ അതിൽ എന്തൊക്കെയാണെന്നുള്ളത് എത്ര കാലമായി അടച്ചിട്ടെന്നുള്ളതും കാര്യങ്ങളറിയില്ലായിരുന്നു ഇത് വന്നപ്പോഴാണ് ഇത്ര കാലമായിട്ട് അടച്ചിട്ടില്ലയെന്നുള്ള കാര്യം ഞാനറിയുന്നത് അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഡീല് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു അതുപോലെത്തന്നെ ഇതെത്ര വർഷത്തേക്കാണ് അല്ലെങ്കിൽ എത്ര കാലത്തേക്കാണിത് അടക്കേണ്ടതും അതു ഇനിയടുത്ത പ്രാവശ്യവും ഇനിയെപ്പോഴാണത് തെറ്റാതെ അടക്കാൻ പറ്റുകയെന്നുള്ള കാര്യങ്ങളൊന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു അതുപോലെതന്നെ ഇത് ഇത്രയും കാലം ഇവർ അടച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞാനിപ്പോഴാണ് അറിയുന്നത് അതുകൊണ്ടുതന്നെ ഇനിയിതിൻ്റെ ബാക്കി വശങ്ങളെന്തൊക്കെയാണ് ഫൈനും കാര്യങ്ങളും വരുമോ അതോ അല്ലാതെ ഡയറക്റ്റ് പൈസ മാത്രം അടച്ചാൽ മതിയോ ആ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതും കൂടിയും ഒന്ന് പറഞ്ഞു തരണം ഇനിയിതിൻ്റെ ആവശ്യങ്ങൾ വേറെയെന്തെങ്കിലും പേപ്പറുകളെന്തെങ്കിലും ഡോക്യൂമെൻ്റ്സ് എന്തെങ്കിലും വെക്കാനുണ്ടോയെന്നുള്ള കാര്യം കൂടിയും എന്നോടൊന്ന് പറഞ്ഞു തരണമെന്ന് അഭ്യർത്ഥിക്കിന്നു